കഴിഞ്ഞ കുറച്ച് കാലായുഗങ്ങളായിട്ട് ഇന്ത്യ അഭിമുകീകരിക്കുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതികഠിനമായ വേനല് ആ മധ്യ വേനൽ ചൂടിലുണ്ടാകുന്ന സമയം തെറ്റിയുള്ള മഴ ഇതിലൂടെ ഒത്തിരിയധികം പരിസ്ഥിതികമായ പ്രശ്നങ്ങള് ഉണ്ടാവുന്നുണ്ട് ഭൂമിയിലെ ഊഷ്മാവ് അതായത് ചൂടില് ഒരു വൺ റ്റൂ വൺ പോയിൻറ്റ് ഫൈവ് ഡിഗ്രി വരെ സാധാരണയിൽ നിന്നും താപനില വർധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടുതന്നെ സമുദ്രത്തിലെ താപനില വർധിക്കുകയും കൂടുതല് അത് മഴപെയ്യാനായിട്ട് സാധ്യതയുണ്ടാക്കും മഴയിലൂടെ ഒത്തിരി അധികം മണ്ണിടിച്ചില് വെള്ളപ്പൊക്കം പോലുള്ള അല്ലെങ്കില് സാഹചര്യങ്ങൾ ഉണ്ടാകുകയും അതിൽ ജീവൻ നഷ്ടപ്പെടുകയും ആൾക്കാരുടെ സമ്പത്ത് നഷ്ടപ്പെടുകയും ചെയ്യുന്നാണ് ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നം മണ്ണിടിച്ചില് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നം പിന്നെ ഫ്ലഡ്ഡ് നമുക്ക് മുൻകൂർകൊടുത്ത് മുൻപായിട്ട് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മള് പ്രവചിക്കുന്നതിലല്ലേ കണക്കാക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായ മഴ പെയ്യുക ഒറ്റേ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ പെയ്യുന്ന മഴയിലൂടെ തന്നെ നമ്മളുടെ നദികളും തോടുകളും കുളങ്ങളും ഇവ നിരത്തുകളുമെല്ലാം ജലം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുക അതിലൂടെ ആൾക്കാരുടെ സഞ്ചാരം ജീവിതം തന്നെ ഭയങ്കര നല്ല രീതിയിൽ ദുസ്സഹമാക്കുക അല്ലെങ്കിലാൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റാതെ പോവുക ജോലി സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവർക്ക് പോകാൻ പറ്റാതെ സ്കൂള് ദിവസങ്ങളോളം അടച്ചിടേണ്ടതായ ഉൾകാല അവസ്ഥ പരിസ്ഥിതി പ്രശ്നത്തിൽ ഏറ്റവും ഉണ്ടായിട്ടുള്ളത് താപനില വർധിക്കുക ഉഷ്മാവ് വർധിക്കുന്നതും അതും അത് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ക്രമാധീതമായിട്ടുള്ള മഴയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പരിസ്ഥിതിയെ ബാധിച്ചിട്ടുള്ളത് കുന്ന് നദികൾ മലിനമാക്കുക നദികളിലേക്ക് നമ്മള് മലിനം വലിച്ചെറിഞ്ഞ് കളഞ്ഞ് നദിയെ മലിനമാക്കുക കാടുകൾ നിന്ന് നമ്മള് മരങ്ങൾ വെട്ടി മാറ്റുക മലകളിടിച്ച് നിരത്തുക കുന്നുകളിടിച്ച് നിരത്തി നമ്മൾ ആവശ്യങ്ങൾക്കായിട്ട് കോറി പോലുള്ള അല്ലെൽ പാറ മടകൾ പോലുള്ള സംരംഭങ്ങൾ വന്ന് നമ്മളുടെ മലയോരങ്ങളും കുന്നുകളും നശിക്കപ്പെട്ട് പോവുന്നുണ്ട് കടലും അതുപോലെതന്നെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് മലിനപ്പെടുന്നുണ്ട് അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങളൊത്തിരിയധികമാണ് കൃഷിയിടങ്ങളും കൃഷി ആവശ്യങ്ങൾക്കല്ലാതെ വേറെ ആവശ്യങ്ങൾക്കുപയോഗിക്കുക അല്ലേൽ കൃഷിയിടങ്ങൾല് ആവശ്യത്തിൽ കൂടുതലായ കീടനാശിനികളുപയോഗിച്ച് കൃഷിയിടങ്ങളും മലിനപ്പെടുത്തുന്നുണ്ട് മണ്ണിലും അതുപോലെതന്നെ മണ്ണില് ആവശ്യത്തിലധികമുള്ള കീടനാശിനികളുപയോഗിച്ച് നമ്മുടെ മണ്ണ് കൃഷിയിടങ്ങൾലെ മണ്ണ് ഒക്കെത്തന്നെ മലിനമായി പോവുന്നുണ്ട് അത് നമ്മൾ ഇന്ന് രാജ്യം നേരപ്പെടുന്ന നേരിടുന്ന ഏറ്റവും വലിയൊരു പരിസ്ഥിതി പ്രശ്നം തന്നെയാണ് ഈ ക്രമാധീതമായിട്ടുള്ള കീടനാശിനികളുടെ ഉപയോഗം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കുകൾ കത്തിച്ച് ഉണ്ടാക്കുന്ന കാർബൺ എമിഷൻ ഇതെല്ലം പരിസ്ഥിതിയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അതിലൂടെ തന്നെ വരും തലമുറകൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്തതായ ഒരു സാഹചര്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന രീതിയിൽ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ലോകം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്